ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡ് ഒക്കെ ഞാൻ ചെറുപ്പം കാലം മുതലേ കുട്ടികൾക്കെല്ലാം സമ്മാനിക്കാറുണ്ട് അതായത് കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിന് സുഹൃത്തുക്കൾക്ക് അവർക്ക് പുറത്തുനിന്ന് വാങ്ങി കൊടുക്കുക അല്ല ചെയ്യുക ഞങ്ങൾ ഓരോ ക്ലാസുകള് യൂട്യൂബിൽ നിന്ന് ഓരോ ക്ലാസുകൾ കണ്ടിട്ട് അത് വഴി ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ പഠിച്ചിട്ട് അത് കുട്ടികൾക്ക് കൈമാറുന്നു അതുപോലെ തന്നെ നമ്മുടെ വീട്ടുകാര് മാമൻ്റെ മക്കളൊക്കെ മക്കൾക്ക് ഒക്കെ അതുപോലെ തന്നെ പിറന്നാളാശംസകൾ അവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഒക്കെ ഉണ്ടാവുക ആണെങ്കിൽ എന്തെങ്കിലും ആശംസ ഒക്കെ അറിയിക്കുക ആണെങ്കിൽ അവർക്കു കാർഡ് ഉണ്ടാക്കിയിട്ടാണ് നൽകാറുള്ളത് അതുപോലെ തന്നെ ബി എഡും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർ ആകാൻ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക ഒരു പാഠഭാഗത്തിൽ ഇപ്പം ഉരലിനേയും ഉലക്കയേയും കുറിച്ച് പഠിക്കാനുള്ള സമയത്ത് നമ്മൾ അത് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ് ഇതാണ് ഉരല് ഇതാണ് ഉലക്ക എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ പാഠം പഠിപ്പിക്കുന്ന സമയത്ത് പാഠത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് രണ്ടു മത്സ്യങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ആ രണ്ടു മത്സ്യങ്ങളെ കാണിച്ചു കൊണ്ട് ഇതാണ് അഴകൻ ഇതാണ് പൂവാലി രണ്ടു മത്സ്യങ്ങളുടെ പേര് പറഞ്ഞു പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കാറുള്ളത് അപ്പം നമ്മുടെ കല എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഇപ്പം ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി അവരുടെ മുന്നിലേക്ക് എത്തിക്കുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് ആ പാഠം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പം കൈ കൊണ്ട് നിർമിച്ച് കല ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് അത് മറ്റുള്ളവരിലേക്ക് എത്തുന്ന സമയത്ത് നന്നായിട്ട് കാര്യങ്ങള് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പം കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഒരു നല്ല ടീച്ചറാവാൻ വേണ്ടിയിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം അവർക്ക് മനസ്സിലാവാത്ത കാര്യം ഇപ്പോൾ ചക്ക് ചക്കിലാട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അറിയുന്നുണ്ടാവില്ല കാളകളിൽ വെച്ചിട്ടെല്ലാം പൂട്ട് അപ്പം അതിൻ്റെ ഒരു മോഡല് നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഓ ഇതാണല്ലേ ചക്കിലാട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിലേക്ക് എത്തുകയും പിന്നീട് ഒരിക്കലും അത് മറക്കാതിരിക്കുകയും ചെയ്യുന്നു അപ്പം കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഓരോ കാര്യത്തിനും വളരെയധികം പ്രാധാന്യമാണ് ഉള്ളത്